ഇപ്പം പാട്ടുകളിൽ നമ്മൾ പൊതുവേ നല്ല രീതിയിൽ പാടുവാണെങ്കിൽ നമ്മൾ ലിറിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് പാടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉള്ള നമുക്ക് പാട്ടുകളൊക്കെ ഉണ്ടാക്കാം ചിലവആർ ലിറിക്സ് ഒക്കേ തെറ്റിച്ച് പാടുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു പാട്ട് പാടി എന്ന് വെച്ചോ പാട്ട് ഇങ്ങനെ പാടി കഴിഞ്ഞു കഴിയുമ്പോൾ ലിറിക്സ് തെറ്റി കഴിഞ്ഞാൽ ആ ഓ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലാലാലാ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ലിറിക്സും കാര്യങ്ങളൊക്കേ നമ്മൾ എഴുതിയെടുത്ത് പാടുവാണെങ്കിൽ നല്ല രീതിയിലുള്ള പാട്ട് നമുക്ക് കിട്ടും പിന്നെ അത് നമ്മൾ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നല്ലൊരു സോങ് ആയിട്ട് അത് മാറ്റാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇടയ്ക്ക് നമ്മുടെ തൊണ്ട ഇങ്ങനെ ഇടറുന്ന സൗണ്ട് ഒക്കെ വരും അപ്പം അത് ഒന്ന് റെഡി ആക്കുകവാണെങ്കിൽ നല്ല രീതിയിലുള്ള പാട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് തന്നെ ഉണ്ടാക്കാം ഈ തെറ്റുകൾ ഒഴിവാക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഉള്ള പാട്ട് നമുക്ക് കിട്ടും ഇതൊക്കെ മെയിൻ ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നല്ലതായിരിക്കും